ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി സർക്കാർ പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുകളുടെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും സംയുക്തമായിട്ടുള്ള പദ്ധതികൾ അതിനകത്തുണ്ട് പ്രധാനമായും ദാരിദ്ര്യ നിർമാർജ്ജനമാണ് ഈ പദ്ധതികളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇപ്പോൾ നിരവധി പദ്ധതികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായൊരു പദ്ധതിയാണ് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന തൊഴിലില്ലാത്ത എന്നാൽ ആരോഗ്യമുള്ള തൊഴിൽ ചെയ്യാൻ മനസ്സുള്ള ആളുകൾക്ക് വർഷത്തിൽ നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ്

പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളയാൾക്കും ഇതിൽ പേര് രെജിസ്റ്റർ ചെയ്യാം ജോലി ചെയ്യാൻ മനസ്സും ആരോഗ്യവുമാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട യോഗ്യത ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് അതുപോലെത്തന്നെ ഐ എ വൈ പദ്ധതി ഭവന രഹിതരായ ആളുകൾക്ക് വീട് നിർമിച്ച് നൽകുന്ന പദ്ധതിയാണ് ഗവൺമെൻറ്റ് ജനറൽ വിഭാഗത്തിന് നാല് ലക്ഷം രൂപയും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആറ് ലക്ഷം രൂപയും ഭാവന നിർമാണത്തിന് നൽകുന്ന പദ്ധതിയാണിത് ഇതും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഭവന രഹിതരായ ആളുകൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് അതുപോലത്തന്നെ മറ്റൊരു പദ്ധതിയാണ് പിന്നെ ഇൻറ്റഗ്രെറ്റഡ് ചൈൽഡ് ഡെവലപ്പ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് അംഗൻവാടികളിൽ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതുപോലത്തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ

അതുപോലത്തന്നെ മറ്റ് അവരുടെ വളർച്ചയ്ക്ക് കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന ഈ പദ്ധതിയും നമ്മുടെ രാജ്യത്ത് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു പദ്ധതിയാണ് അതുപോലത്തന്നെയാണ് ഭാരത് നിർമാൺ പദ്ധതി എന്ന് പറഞ്ഞ് അതായത് ഗ്രാമീണ സഡക്ക് യോജന എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഗ്രാമ പ്രദേശങ്ങളിൽ എട്ട് മീറ്റർ വീതി ഉള്ള മൺ റോഡുകളെ പിന്നെ യാത്ര വാഹന ഗതാഗതത്തിന് അനുയോജ്യമാക്കുന്ന പദ്ധതി അല്ലെങ്കിൽ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത് ഇതും വളരെയധികം ജനങ്ങൾക്ക് നിരവധി നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നൂറ് കണക്കിന് കിലോമീറ്റർ റോഡുകൾ ഇതിലൂടെ നിർമ്മിക്കുന്നതിനും പാലങ്ങൾ നിർമ്മിക്കുന്നതിനും അതിലൂടെ ഗ്രാമങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും സാധിക്കുന്ന ഒരു കേന്ദ്ര ഗവണ്മെൻറ്റ് പദ്ധതിയാണിത് അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ഇത് ആളുകളെ വളരെയധികം സഹായിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെത്തന്നെ പിന്നെ ഇൻറ്റഗ്രെറ്റഡ് ഐ ടി ഡി പി ഇൻറ്റഗ്രെറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതുപോലെ ഐ എ വൈ ഈ പദ്ധതികളെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെയധികം ഗുണം നൽകുന്ന പദ്ധതികളാണ്